ഹലോ ഹലോ ആ ഇത് സ്കാൻ ഡോക്ടർ അല്ലേ എനിക്ക് കഴിഞ്ഞ രണ്ടുദിവസം മുന്നേ എനിക്ക് ചെറുതായിട്ട് ഒന്നൊരു നൈറ്റ് ഞാനിങ്ങനേ വണ്ടിയെടുത്തു വരുമ്പോൾ ജസ്റ്റ് ഒന്ന് ആക്സിഡൻറ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ തലയ്ക്ക് ചെറുതായിട്ടൊരു മുറിവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ചിലസമയങ്ങളിൽ ഭയങ്കരമായിട്ട് തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടുകാരൊക്കെ നിർബന്ധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെയൊന്നും കാണിക്കാണ്ട് ജസ്റ്റ് ഈ മുറിവല്ലേ ഉള്ളൂ അത് നമുക്ക് വെച്ചുകെട്ടിയാൽ മതിയെന്ന് വിചാരിച്ചിട്ട് വീട്ടിലേക്ക് പോന്നു ആ അപ്പോൾ ഇല്ല സ്റ്റിച്ചിന് ഇടാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല തലേൻ്റെ ബേക്കിലായിട്ട് ചെറുതായിട്ടൊരു മുറിവുണ്ടായിരുന്നു കുറച്ചു ഉള്ളിലേക്കാണ് പക്ഷേ എന്നാലും വലിയ കുഴപ്പമൊന്നുമുണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് എന്താണ് പറയുക ഇപ്പോൾ ഉറക്കവും അങ്ങനെയൊന്നും വരുന്നില്ല ഭയങ്കരമായിട്ട് തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് അപ്പോൾ അത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ആ ആ ഒന്നുരണ്ടു വട്ടം ഞാൻ ഛർദിച്ചായിരുന്നു രാത്രി ഛർദിക്കാനായിട്ട് ഞാനിപ്പം ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തലവേദനയെടുക്കുക ശർദിക്കാൻ വരുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അപ്പോഴാണ് നല്ലതായിരിക്കുമല്ലേ

ആ ആ ആ ആ ആ വരണം അല്ലേ ഓക്കേ ഓക്കേ ആ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിലേ ഒന്ന് എവിടെയാണ് ഇപ്പം നമുക്ക് സ്കാൻ ചെയ്യാൻ പറ്റിയ ഡോക്ടർ ഷാജീഷ് എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട്

കോഴിക്കോട് എവിടെയായിട്ടാണ് ഷാജീഷിൻ്റെയാണോ വരുന്നുണ്ടല്ലേ ഓക്കേ ഓക്കേ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്തുകഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടർ എടുത്തിട്ട് വന്നാൽ മതിയോ ഡോക്ടറുടെ അടുത്തേക്ക് മതിയാവും അല്ലേ ഓക്കേ അങ്ങനെയാണെങ്കിൽ ഞാൻ ചെയ്തുകഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറുടെ അടുത്തേക്ക് വരാം എന്നാൽ ഓ ഓക്കേ ഓക്കേ ഓക്കേ ഡോക്ടർ മ്